ആ പറഞ്ഞോ കേള്ക്കുന്നുണ്ട്

ആ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ ആ വന്നു രണ്ടു പ്രാവശ്യം വന്നായിരുന്നു ആ ആ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പേര് ഹെല്ന ഹെല്ന ആ

ഓക്കെ പറഞ്ഞോ ഫുഡൊക്കെ കുഴപ്പമില്ല ചൂടാക്കിയൊക്കെയാണ് കഴിക്കുന്നത് ആ കുളിക്കണൊക്കെയുണ്ട് ഇല്ലില്ല പോകുന്നൊന്നുമില്ല വീട്ടില്ത്തന്നെയാണ് ഇരിക്കുന്നത്

ആ മേലുവേദനയുണ്ട് പിന്നേ ടേസ്റ്റൊന്നും കിട്ടുന്നില്ല ആ ഓക്കെ ആ എല്ലാം കഴിക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മേലു വേദനയുണ്ട് പിന്നെ ടേസ്റ്റ് കിട്ടുന്നില്ല അങ്ങനെയെക്കെ കുറച്ച് ആ

ആ എന്നാല് ഓക്കെ